കാർഷിക മേഖലയ്ക്കുള്ള സർക്കാർ പദ്ധതികൾ പലപ്പോഴും നമുക്കധികം ഗുണം ചെയ്യുന്നതായിട്ട് കാണുന്നില്ല എന്തെന്നാൽ അതേതെങ്കിലൊരേജൻസി വഴിയോ അല്ലെങ്കിൽ എന്നാ ഏതെങ്കിലൊരു സർക്കാരിൻ്റെ സർവെ വഴിയോ ഒക്കെയിവരെടുത്താൽ അല്ലെങ്കിൽ ഗ്രാമസഭ വഴിയൊക്കെ കർഷകരെ ഇവർ ഓരോ കാര്യങ്ങൾക്കായിട്ട് സെലക്റ്റ് ചെയ്യും പക്ഷെ എന്നിരുന്നാൽ തന്നെ അത് യഥാർത്ഥമായിട്ടൊരു ഒരു ഗുണത്തിലെത്തിച്ചേരുന്നില്ല പിന്നെ അവർക്ക് ഗുണമേന്മയുള്ള സാധനങ്ങൾ ലഭിക്കുന്നില്ല കർഷകരെ സംബന്ധിച്ച് അവർക്ക് ഇപ്പീ ജീവിതച്ചിലവും പണിക്കാരുടെ കൂലി വർദ്ധനവും ഇതിനെല്ലാം ഉള്ള ഒരു സാഹചര്യത്തിൽ യന്ത്രവൽകൃതം അങ്ങനെയാണെങ്കിൽ മിഷ്നറികൾ കൊണ്ട് കൂടുതൽ ഇന്ന് കർഷകന് പണിഭാരം കുറയ്ക്കാൻ തക്ക രീതിയിലുള്ളത് ടെക്നോളജി ബെയ്സ് അതിനു മുന്നോട്ട് കൊണ്ടു വരാനായിട്ട് സർക്കാരാത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് കർഷകർക്ക് പ്രയോജനകരമാകും പലപ്പോഴും ഈ ഈ ഏജൻസി വഴിയും അല്ലെങ്കിൽ ഗ്രാമസഭ വഴിയൊക്കെ ആൾക്കാർക്കോരോ എന്തെങ്കിലൊക്കെ കൊടുത്ത് തീർക്കുന്നുള്ളതല്ലാതെ ആത്മാർത്ഥമായിട്ടുള്ളൊരു സമീപനം പലപ്പോഴും കാണുന്നില്ല ആത്മാർത്ഥമായിട്ട് ഇവരെ നല്ല രീതിയിൽ കൊണ്ടു വരണമെന്നും അതു കൊണ്ട് സമൂഹത്തിനെന്തെങ്കിലും ഗുണമോ ഉണ്ടാകണമെന്നൊക്കെയുള്ള ഒരു കാഴ്ചപ്പാട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുകയാണെങ്കിൽ തന്നെ ആത്മാർത്ഥമായൊരു സമീപനം ഉണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കാർഷിക ഉപകരണങ്ങൾ അതു പോലെ വളം വെള്ളം കൃഷിക്ക് ഏതായാലും വെള്ളമില്ലാതെ മുന്നോട്ട് കൊണ്ടു പോകാൻ സാധിക്കില്ല അപ്പം വെള്ളം പിന്നെ വൈദ്യുതി കറണ്ട് കണക്ഷനൊക്കെ മിതമായൊരു നിരക്കിൽ ലഭിക്കാനുള്ളൊരു സംവിധാനം ചെയ്യേ അതു പോലെ ജലസേചനം എളുപ്പമാക്കാനുള്ളൊരു ശ്രോതസ്സുകൾ അവർക്ക് തുറന്നു കൊടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്കത് വളരെയേറെ പ്രയോജനപ്പെടും അല്ലാതെ ഒന്നും ചെയ്യാതിരുന്നിട്ട് കാർഷികമേഖല തകർന്നു അങ്ങനെയാണിങ്ങനെയാണെന്ന് പറഞ്ഞു കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല അവരെ സംബന്ധിച്ച് അവർക്ക് ഒരു മുതൽ മടക്കാനായിട്ട് ഒന്നും തന്നെയില്ല കാരണം അവരുടെ ചിലവ് അധികരിച്ചിരിക്കുകയാണ് അപ്പം അവർക്ക് പണിച്ചിലവ് പണിക്കൂലി വർദ്ധിച്ചു വളത്തിന് വർദ്ധിച്ചു ആ അതിനിടയിൽ അവർ അവരേൽ കഴിയുന്നതോരോന്നും ചെയ്തവർ മുന്നോട്ട് പോകുന്നതിനിടക്ക് ഈ ആത്മാർത്ഥമായിട്ടൊരു സമീപനം അല്ലാത്തതു കൊണ്ട് അത് പ്രയോജനം ചെയ്യുന്നില്ല യഥാർത്ഥമായിട്ടൊരു കർഷകനെ ഉയർത്തിക്കൊണ്ട് വരണമെന്നു സർക്കാർ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ പദ്ധതികളവരിൽ നേരിട്ടെത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം കാരണം നേരിട്ട് അവരെ അവരെ അർഹർ അർഹരെന്നു പറഞ്ഞു കഴിഞ്ഞാൽ കാർഷിക മേഖലയിൽ പണിയെടുക്കുന്നവരാണ് തൊണ്ണൂറ് ശതമാനത്തിലധികം വരുന്ന ആൾക്കാർ മലയോര മേഖലകളിൽ ഉദ്യോഗസ്ഥർ സർക്കാരിൽ സർക്കാരുദ്യോഗസ്ഥർ വളരെ കുറവാണ് അപ്പോൾ അവരുടെ സ്ഥലത്തിൻ്റെ എന്ന് സ്ഥലത്തിൻ്റെ സ്ഥലത്തിൻ്റെ വിസ്തീർണ്ണം അല്ലേ എത്രയേക്കർ ഉണ്ട് കൂടുതൽ സ്ഥലമോ ഉള്ളവരുണ്ടെങ്കിൽ അവർക്കതനുസരിച്ചുള്ളയൊരു സഹായം ചെയ്യുകയാണെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്നൊരു സമീപനമോ ഉണ്ടാകുകയാണെങ്കിൽ തന്നെ അവർക്ക് വളരെയേറെ മുന്നോട്ട് വരാൻ സാധിക്കും ഇപ്പം ഇതിൻ്റെ ഈ നഷ്ടങ്ങൾ കാരണം ഓരോ തലമുറ പുതു തലമുറകളെല്ലാം കൃഷിയിൽ നിന്നകന്ന് പോയിരിക്കുകയാണ് അത് ഗുണകരമായി തീരുവാണെങ്കിൽ ഓരോ പുതിയ തലമുറയും ചിലപ്പോൾ കൃഷിയിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട് കാരണം അവരെന്നും കേൾക്കുന്നത് ഈ അവരുടെ കാരണവന്മാർ പറയുന്നത് ഓരോ പ്രാവശ്യം കണ്ണീരിൻ്റെ കഥകളാണ് അല്ലെങ്കിൽ നഷ്ടത്തിൻ്റെ കഥകളാണ് അവരൊരിക്കലും ഗതി പിടിച്ച് ഈ മക്കൾ കാണുന്നില്ല കാരണം അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും അവർ കിടന്ന് പണിയെടുക്കുന്നതല്ലാതെ അതു കൊണ്ടൊരു അത്യന്തികമായിട്ടൊരു നേട്ടം ഈ മക്കൾക്ക് കൺമുന്നിൽ കാണുന്നില്ല അതു കൊണ്ടവർ അവർ സ്വാഭാവികമായിട്ട് നമ്മൾ പറഞ്ഞാൽ തന്നെ പറമ്പിലിറങ്ങി പണിയുക അല്ലെങ്കിലങ്ങനെ ചെയ്യാൻ പറയുമ്പം തന്നെ അതിനെ എതിർക്കുന്നത് എന്തു കൊണ്ടാണെന്നു ചോദിച്ച് കഴിഞ്ഞാലവർ കാണുന്നതിതാണ് അവർ പരാചയപ്പെട്ട കാരണവന്മാരെയാണ് കാണുന്നത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഒരു മറ്റ് പ്രൈവറ്റായിട്ടുള്ള ഒരു സംഘടനകളുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റേതൊരു പ്രസ്ഥാനത്തിൻ്റെയൊരു സഹകരണ ഒന്നും കാർഷിക മേഖലക്ക് കിട്ടുന്നില്ല ആ അതിൽ ബുദ്ധിയും വിവരമുള്ളവർ തട്ടിച്ചും വെട്ടിച്ചും അല്ലെങ്കിൽ ഏതെങ്കിലൊക്കെ കള്ളത്തരം പറഞ്ഞ് ലോണെടുത്തൊക്കെ അത് തിരിച്ചടക്കാതെയൊക്കെ സർക്കാരിനെയാണെങ്കിലും പറ്റിക്കുന്നു യഥാർത്ഥമായിട്ട് പണിയുന്നവനൊരു കൈത്താങ്ങാകാൻ സർക്കാരിന് സാധിക്കുകയാണെങ്കിൽ നമ്മുടെ നാട് ഒരുപാട് വികസനം വികസിക്കും കാരണം കർഷകരാണ് നാടിൻ്റെ നട്ടെല്ലെന്നല്ലേ നമ്മൾ കേട്ടിരിക്കുന്നത് ആ നട്ടെല്ല് ബലവത്താക്കാൻ വേണ്ടൊരു സംവിധാനം ഈ നമ്മുടെ സർക്കാരിനെന്തു കൊണ്ട് തോന്നാത്തത് അവർ അവരെയുപേക്ഷിച്ച് കളഞ്ഞതു പോലെ ഉദ്യോഗസ്ഥരുടെ വ്യവസായികളുടെ അങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്തും അവരെ താങ്ങിയും നടക്കുന്ന ഈ ഇവർ എന്തു കൊണ്ടീ മണ്ണിൽ പണിയെടുക്കുന്നവരെ കാണുന്നില്ല അവരെയൊന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നില്ല ആത്മാർത്ഥമായിട്ടുള്ള സമീപനം ഇല്ലാത്തതു കൊണ്ട് തന്നെയാണങ്ങനെ സംഭവിക്കുന്നത് ഇതിൽ ആത്മാർത്ഥത അല്ലെങ്കിൽ നമ്മുടെ നാട് മുന്നോട്ട് പോകണമെന്നൊരു യഥാർത്ഥമായ ചിന്തയുണ്ടെങ്കിൽ അതിൻ്റെയൊരു മാറ്റം നമ്മുടെ സമൂഹത്തിലുണ്ടാകും ചെറുകിട കർഷകർ നല്ല രീതിയിൽ മുന്നോട്ടു വന്നാൽ മാത്രമേ ചെറുകിട കച്ചവടക്കാർക്കും അങ്ങനെയുള്ളവർക്കൊരു ഉണർവുണ്ടാകുകയുള്ളു കാരണം അവർക്ക് സാധാരണക്കാരുടെ പൈസയുണ്ടെങ്കിലേ ചെറിയ ചെറിയ കച്ചവടക്കാർക്കും ആ അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്നാ ഒരു സമൂഹത്തിനൊരു ഉയർച്ചയുണ്ടാകുകയുള്ളൂ കാർഷിക മേഖല തകിടം മറിഞ്ഞു കഴിഞ്ഞാൽ സർക്കാരറിയുന്നില്ല അതവരുടെ തന്നെ അടിത്തറ ഇളകുന്നൊരു സമയം ആണെന്നവർ മനസ്സിലാക്കുന്നില്ല കാരണം അവർ ഈ കർഷകരുടെ ഓ ഈ ടാക്സും എല്ലാ എടുത്തു കൊണ്ടു തന്നെയാണ് ഓരോ സംവിധാനങ്ങൾ മുന്നോട്ട് പ്രവർത്തിക്കുന്നത് അതനുസരിച്ച് അവർ സപ്പോർട്ട് ചെയ്യാനായിട്ട് തയ്യാറാകണമെന്നാണ് പറയാനുള്ളത് നിർദ്ദേശമെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ടെത്തിക്കുവാനാണ് കൂടുതൽ പരിശ്രമിക്കേണ്ടത് കർഷകരുടെ കയ്യിൽ നേരിട്ടെത്തിക്കുക ബാധ്യതകളില്ലാതെ ഇടനിലക്കാരില്ലാതെ അവർ വളരണം അല്ലെങ്കിൽ അവർക്കതു കൊണ്ട് ഗുണമുണ്ടാകണം അവരുടെ കുടുംബം അല്ലെങ്കിൽ സമൂഹം അതു കൊണ്ട് മെച്ചപ്പെടണം അല്ലെങ്കിൽ അങ്ങനെയൊരു ചിന്താഗതി നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുകയാണെങ്കിൽ മാത്രമേ ഇനിയുള്ള കർഷകർക്ക് മുന്നോട്ടെന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളു എല്ലാവരും ഈ കൃഷിയിൽ നിന്നക്കന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ച് കൃഷിക്കാരെ പ്രോത്സാഹിപ്പിക്കാനുള്ള നല്ല നല്ല പദ്ധതികളുമായിട്ടുള്ള മുന്നോട്ടു വരണം അല്ലെങ്കിൽ തന്നെ ഇനി കാർഷിക മേഖല ഇല്ലാതായി തീരും ഇവിടെ അത് ഇപ്പോൾ തന്നെ ആനയും മറ്റ് വന വന്യമൃഗങ്ങളും ഈ നാടിനെ നാട്ടിലേക്ക് കയറി വരുന്ന പോ കയറി വന്നിത് കയ്യടക്കുന്നതു പോലെ കർഷകരും കൂടി മണ്ണിനെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ നാടില്ലെന്നാകും അതു കൊണ്ട് ആത്മാർത്ഥമായ സമീപനത്തോടെ സർക്കാർ കർഷകരെ സംരക്ഷിക്കുക കർഷകർക്കു വേണ്ട കാര്യങ്ങൾ ആത്മാർത്ഥമായിട്ടത് ചെയ്തു കൊടുക്കുക അവരെ കൈ പിടിച്ചുയർത്തുക